അതെ പറഞ്ഞോളൂ ആ ഓക്കെ സാർ എത്ര പേർക്കുള്ളതാണ് ആണല്ലേ

ആയിക്കോട്ടെ എടുത്ത് വെക്കാൻ ആണല്ലേ ആ സാറേ ഓൾമോസ്റ്റ് എത്ര മെമ്പേഴ്സിന് ഉള്ളതാണ് ഇപ്പം എടുക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ആ ആയിക്കോട്ടെ സാറ് ഇന്ന് വരുമോ എന്നാൽ സ്റ്റോക്ക് ഓൾമോസ്റ്റ് തീർന്നിട്ടൊന്നും ഇല്ല സാറേ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് ഇപ്പോഴും പിന്നെ സാർ നാളത്തേക്ക് ആണ് വരുന്നതെങ്കിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടേതെന്ന് ഒക്കെ പറയുവാണെങ്കിൽ നമുക്ക് അത് നല്ല കളക്ഷൻസ് നോക്കീട്ട് സെലക്ട് ചെയ്ത് വെക്കാട്ടോ ഓക്കെ ആ

ആ ഓക്കെ ഉണ്ട് ഉണ്ടാവും സാർ ആയിക്കോട്ടെ എല്ലാം നമുക്ക് ഇവിടെ വന്നിട്ട് സാറിന് പറ്റിയത് അത് ചൂസ് ചെയ്താൽ മതി അവര കളറും കോമ്പിനേഷനും ഒക്കെ നോക്കീട്ട് സാറിന് പറ്റിയ കളേഴ്സ് ഒക്കെ നോക്കീട്ട് എടുക്കാം പിന്നെ ഓഫറും കാര്യങ്ങളെന്ന് ഒക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഒരു ത്രീ തൗസൻഡിൻ്റെ ഒക്കെ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ഓഫ് വരുന്നുണ്ട് അപ്പം ആ അതായത് ഫിഫ്റ്റിൻ പെർസെൻറ്റേജ് ആ ആ പിന്നെ ടെൻ തൗസൻഡ് ഒക്കെ ആണെങ്കിൽ സ്ക്രാച്ച് കാർഡും കാര്യങ്ങളും അതായത് സ്ക്രാച്ച് കാർഡും കിട്ടും പിന്നെ വൺ ഗ്രാമിൻ്റെ ഒരു ഗോൾഡ് കോയിൻ പിന്നെ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് പിന്നെ ഡിസ്കൗണ്ടും കാര്യങ്ങളും തന്നെ വരുന്നണ്ട് സാർ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓക്കെ എന്നാൽ സാർ നാളെ വന്നാൽ മതി നമുക്ക് എടുക്കാം